വളരെ നയതന്ത്രപരമായൊരു ചോദ്യമാണ് ഫോട്ടോഗ്രഫി മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫോട്ടോഗ്രഫി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം അത് നിത്യേന സംഭവിക്കുന്നൊരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാ ഉദാഹരണത്തിന് ഫോട്ടോഗ്രഫിയിലുള്ള പുതിയ പുതിയ സങ്കേതങ്ങൾ പുതിയ പുതിയ സമ്പാദന രീതികൾ എന്നിവ ഓരോ ദിവസവും ദിവസം വണ്ണം ദിവസേന കണ്ടുപിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സന്ദര്ഭത്തിലാണ് ഫോട്ടോഗ്രഫിയില് പഴയ ക്യാമറകൾ പുതിയ ക്യാമറകളും തമ്മിലുള്ള വ്യത്യാസം വളരെ എടുത്ത് പറയത്തക്ക ഒന്നാണ് പഴയ ക്യാമറകളുടെ ഒരു രീതി അനുസരിച്ച് അതിനെടുക്കാൻ പറ്റുന്ന അല്ലേൽ അതിന് പകര്ത്താന് പറ്റുന്ന ചിത്രങ്ങളുടെ രീതിക്ക് അല്ലെങ്കില് അതിന്റെ വളരെ വ്യത്യാസത്തിലാണ് പുതിയ മൊബൈല് ക്യാമറകളായാലും പുതിയൊരു കാലത്തെ ക്യാമറകള്ക്ക് ചെയ്യാന് പറ്റുന്നത് ഉദാഹരണത്തിന് ഒരു വീഡിയോ അല്ലെങ്കിലൊരു പകര്ചിത്രം പകര്ത്തുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമെങ്കില് നമുക്ക് ഇതിനെ രണ്ടിനെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാം പഴയ ക്യാമറകളെയും പുതിയ ക്യാമറകളെയും പക്ഷേ ആ ചിത്രത്തില് അതിന്റെ ഡീറ്റെയിലിങ്ങിൽ കൂടുതൽ കൂടുതൽ രീതികള് ഉള്പ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതെങ്കില് നമുക്ക് പുതിയകാലത്തെ ക്യാമറകള് അല്ലെങ്കില് പുതിയ മൊബൈല് ക്യാമറകളെ എടുക്കാനേ പറ്റൂ ഏറ്റവും ചെറിയ ഉദാഹരണത്തിന് മള്ട്ടിപ്പിള് ഫോക്കസ് എന്ന് പറയുന്ന ഒരു സങ്കേതമുണ്ട് പുതിയ ക്യാമറകളില് പഴയ ക്യാമറകളിലങ്ങനെയല്ല ഒരു സെറ്റ് ഫോക്കസ് ഒരാളെ ഫോക്കസ് ചെയ്യുക അയാളുടെ അല്ലെങ്കിലൊരു സെറ്റിനെ ഫോക്കസ് ചെയ്യുക ആ സെറ്റിനെ എടുക്കുക എന്നുള്ളൊരു രീതി ഇപ്പോഴത്തെ കാലത്തേയ്ക്ക് വന്നുകഴിയുമ്പോൾ അല്ലേൽ പുതിയ മൊബൈല് ക്യാമറകളുടെ രംഗത്തേക്ക് വന്നുകഴിയുമ്പോൾ അത് മള്ട്ടിപ്പിള് ഫോക്കസിങ്ങ് എന്ന ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു അതിന് ഉപയോഗിക്കപ്പെടുന്ന സങ്കേതങ്ങളായാലും സംവിധാനങ്ങളായാലും എല്ലാം ദിവസേന പുതിയ പുതിയ കാര്യങ്ങള് വന്നുകൊണ്ടിരിക്കുന്നു അതിനെല്ലാം പുതിയ പുതിയ ആപ്പുകളായാലും പുതിയ സങ്കേതങ്ങള് ഉണ്ടാക്കപ്പെടുയും അത് ഉപയോഗിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊരു സമയത്ത് ഇപ്പോഴത്തെ ഫോട്ടോഗ്രഫി എന്നു പറയുന്നത് പഴയ കാലത്തില് നിന്ന് വളരെ വ്യത്യാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്നൊരു നഗ്നസത്യമായി നമ്മുടെ മുന്പില് വന്നുനില്ക്കുകയാണ്